ഇത് കലകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റും നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റ് ആയാലും ഇപ്പോൾ ഒരുപാട് സിനിമ താരങ്ങൾ ആയാലും അവരൊക്കെ തന്നെ ഒരു കലയെ കൊണ്ടാണ് മുന്നേറിവരുന്നത് നാളെ കാണുമ്പോൾ ഫിലിം സ്ക്രീനിൽ കാണുന്ന ഓരോരുത്തരെയും അവർ കലകൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ ആയിരുന്നു സുരാജ് വെഞ്ഞാറമൂടിനെ തന്നെ നമുക്ക് എടുക്കാം എക്സാമ്പിൾ ഒരു മിമിസ്ക്രി ആർട്ടിസ്റ്റ് ആയിട്ട് ചെറുതായിട്ട് നിൽക്കുകയായിരുന്നു കോമഡി സ്റ്റാർസ് പരിപാടി അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കയറി വരുന്നുണ്ട് നോബി അപ്പോൾ നമുക്ക് കലകൊണ്ട് മുന്നേറാൻ പറ്റും പിന്നെ ഒരുപാട് കലകൊണ്ട് നമുക്ക് ആർട്സ് കോളേജ് അങ്ങനെയുള്ള അഡ്മിഷൻ നമുക്ക് കലകൊണ്ട് തന്നെ നമുക്ക് കിട്ടും കലകൊണ്ട് മുന്നേറാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ പറ്റും നൂറ് ശതമാനം പറ്റും പക്ഷെ അതിനനുസരിച്ച് കലയിലുള്ള ഇത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കലയോടുള്ള സ്നേഹമുള്ളവർ മാത്രം അതിനനുസരിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വരുമ്പോൾ നമുക്ക് കലകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റും